എന്നെ കുറിച്ച് പറയണംന്ന് പറഞ്ഞ് കഴിഞ്ഞാ ഇപ്പോ വീട്ടില് അച്ഛൻ ഏട്ടൻ പിന്നെ അമ്മ മരിച്ചുപോയി ഞാന് ഇപ്പോൾ എൻ്റെ വീട്ടില് എൻ്റെ വീട്ടിലാണെങ്കിൽ ഭാര്യയും ഒരു മകനുമാണുള്ളത് ഞാന് അത്യാവശ്യം സിമന്റ് കട കാര്യങ്ങള് അങ്ങനത്തൊരു ഫീൽഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ പഠിച്ച പിഎച്ഡി ഒക്കെ കഴിഞ്ഞതാണ് ഇപ്പോ ഞാന് ലോറിയിൽ ഡ്രൈവർ ആയിട്ട് പോവാണ് മുൻപ് രണ്ടു ലോറിയും കാര്യങ്ങളൊക്കെ ഇണ്ടായിരുന്നു കൊറോണ സമയത്ത് ബുദ്ധിമുട്ടും കാര്യങ്ങളും കാരണം ലോറിയും കാര്യങ്ങളും ഒക്കെ അവസാനിപ്പിച്ചു പിന്നെ സിമന്റ് കട ഇട്ടു പിന്നെ ഇപ്പോൾ വീണ്ടും ഞാൻ ലോറി ഡ്രൈവർ ആയിട്ട് പോവാണ് ഗൾഫിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു മുൻപ് അവിടുന്ന് വന്നിട്ടാണ് പിന്നെ ലോറി വേടിച്ച അതിൻ്റെ ഇതക്ക അത്യാവശ്യം നല്ല രീതിക്ക് പൊയ്ക്കൊണ്ടിരുന്നു പക്ഷെ കൊറോണ സമയത്തായപ്പോൾ എന്താ പറയുക ഓടാൻ ഡ്രൈവർ ഓടാനും പറ്റിയില്ല അപ്പോൾ ആ സമയത്ത് അതിൻ്റെ അടവും കാര്യങ്ങളൊക്കെ തെറ്റി അപ്പോൾ അത് കൂടാണ്ടിരിക്കാൻ വേണ്ടി അത് ഒഴിവാക്കി ഈ ഇടക്ക് ഒരു ചെറിയ വീടുപോലെ അതായത് തറവാടിന്ന് മാറി ഈ ഒരു വീട് വീട് പോലെ അത്യാവശ്യം സെറ്റ് അപ്പ് ആക്കീട്ടുണ്ട് ഒരു നാല് മുറി പിന്നെ ഒരു സിറ്റ് ഔട്ട് രണ്ട് ബെഡ്റൂം ചെറിയൊരു അടുക്കള അങ്ങനന്നൊരു വീട് കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കീട്ടുണ്ട് പിന്നെ ഇപ്പോൾ പുതിയൊരു ലോറി വേടിക്കാനുള്ളൊരു പരിപാടി കൂടെ നോക്കുന്നുണ്ട്